പാചകം എപ്പോഴും ഒരു വിനോദം തന്നെ ആണല്ലോ അതിനമ്മയും ബാക്കി വന്നവരൊക്കെ സഹായിച്ചു എല്ലാം സ്വന്തക്കാരൊക്കെ ആയത് കൊണ്ട് ഓരോ സാധനങ്ങൾ ഉള്ളി അരിയാനും ചിക്കൻ വറുക്കാനും എണ്ണ എടുക്കാനും പിടിക്കാനും മൊത്തം ഓരോ ഒച്ചപ്പാടും ബഹളവും ആയിരുന്നു പാചക സമയത്ത് എല്ലാവരും തമാശ പറഞ്ഞിരിക്കുക നമ്മളെ നമ്മളെ കുക്കിങ്ങിൽ ഇൻസ്പയർ ചെയ്യുക ഓരോ മസാലകൾ പുരട്ടുമ്പോൾ അവർക്കറിയാത്ത കാര്യങ്ങൾ അവർ നമ്മളിൽ നിന്ന് പഠിക്കുക നമ്മക്കറിയാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞ് തരുന്നു കുറേ എക്സ്പീരിയൻസാണ് നമ്മൾ ഒരു ഫാമിലി മൊത്തമായിട്ട് നിന്ന് പാചകം ചെയ്യുമ്പം അതും ഒരു പത്തിരുപത്തഞ്ച് പേരുണ്ടെന്നൊക്കെ പറയുമ്പം എന്തെന്നില്ലാത്ത വളരെ ഒന്നും പറയാൻ പറ്റില്ല അമ്മാതിരി ഫീലാണ് അതിൻ്റെ കൂടെ പാട്ട് ലഹള പിള്ളേരുടെ തല്ല് പിടുത്തം കരച്ചിൽ കൊച്ച് പിള്ളേരുടെ കരച്ചിൽ ഏഹ് പിന്നെ നമ്മൾ അന്താക്ഷരി കളിക്കുക പാചകത്തോടൊപ്പം തന്നെ അന്താക്ഷരി കളിക്കുക വളരെ എക്സ്പീരിയൻസാണ് വളരേ എൻജോയ് ഫുള്ളാണ് നമ്മളൊരു കല്യാണ വീട്ടിൽ പാചകത്തിന് പോയാൽ എങ്ങനെയിരിക്കും അതുപോലെയായിരുന്നു നമ്മളന്ന് വീട്ടിൽ പാചകം ചെയ്തപ്പോൾ പിന്നെ പാചകം പൊതുവേ എനിക്ക് വളരെ ഇഷ്ടമാണ് വളരെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ് ഞാൻ ചെറുപ്പം മുതലേ പാചകം ചെയ്യാൻ തൊടങ്ങിയതാണ് സ്വന്തമായിട്ടുള്ള അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും സ്വന്തമായിട്ടുതന്നെ ഉണ്ടാക്കും